വസ്ത്രങ്ങൾ കഴുകാൻ ഞാൻ പൊതുവേ ഞാൻ കൈ കൈ കൊണ്ട് തിരുമ്മും വസ്ത്രങ്ങൾ ഒരു ഒരു ചിലപ്പം കൈ കൊണ്ട് തിരുമ്മും അല്ലെങ്കിൽ ഞാൻ ആധുനിക ആധുനിക വിദ്യയുടെ സഹായത്തോടെ വസ്ത്രങ്ങൾ ഞാൻ ചിലപ്പോൾ വൃത്തിയാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കാരണം ആ പക്ഷേ കൂടുതലും കൈ കൊണ്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കും കാരണം ആധുനകതയോൽ നമ്മൾ ആശ്രയിച്ച് കഴിഞ്ഞ നമ്മൾ ഒരു നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരുപാട് മടി പിടിച്ച വ്യക്തികളായിപ്പോകും അപ്പം ആധുനിക കാര്യങ്ങളിൽ യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് കൈ കൊണ്ട് വസ്ത്രങ്ങൾ കഴുകാനാണ് കാരണം കൈ കൊണ്ട് വസ്ത്രങ്ങൾ കഴുകുന്നതിനൊരു അതിൻറ്റേതായൊരു തനിമയുണ്ട് അതിൻറ്റേതായൊരു തനിമയുണ്ട് വ്യത്യസ്ഥ കാലാവസ്ഥയിൽ അവ എങ്ങനെ ഒ വ്യത്യസ്ഥ കാലാവസ്ഥയിൽ നിന്ന് പറയുമ്പോൾ ഇപ്പം മഴ ഉള്ള സമയത്താണെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഈ വീട്ടിൽ കറങ്ങുന്ന കറങ്ങുന്ന ഫ് ഫാനിൻ്റെ അടിയിൽ കൊണ്ട് പോയി വസ്ത്രങ്ങളിട്ട് ഉണക്കുമായിരിക്കും അല്ലെങ്കിൽ ഞാൻ വെളിയിൽ വിരിച്ചിടും വെളിയിൽ വിരിച്ചിടും ഒരു പക്ഷേ ഉണങ്ങി ഉണങ്ങി കിട്ടിയില്ലെങ്കിൽ അതിനെ എങ്ങനേലും ഞാൻ ഉണക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ഒരു പക്ഷേ ഞാനാ അതിന് വേണ്ടി ഉള്ള സജ്ജീകരണങ്ങൾ ഞാൻ എൻറ്റേതായ എൻ്റെ എൻറ്റേതായൊരു രീതിയിൽ ഞാൻ ചെയ്ത് ചെയ്തു വെക്കാറുണ്ട് അതും അതും നമുക്ക് സാധ്യമായൊരു കാര്യമാണ് പിന്നെ മ ഒരു ഉഷ്മ ലെക്ക് നല്ല നല്ല ഒരു അപ്പം ഒരു വലിയൊരു വേനൽ കാലത്താണെങ്കിൽ നമുക്ക് എളുപ്പമാണ് വസ്ത്രങ്ങൾ ഉണങ്ങാൻ അത് അത്രയ്ക്കും അത്രയ്ക്കും ഒരു ബുദ്ധിമുട്ട് വരത്തില്ല വേനൽ കാലത്തൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ വസ്ത്രങ്ങൾ ഉണങ്ങി കിട്ടുകയും ചെയ്യും പിന്നീട് പറയുവാണെങ്കിൽ ഞാൻ ധാരാളമായ വെള്ളങ്ങൾ വെള്ളം പാഴാക്കാൻ ക്കുന്നില്ല എന്നുള്ളതിന് ഉറപ്പെന്താന്ന് ചോയിച്ചാല് ഞാൻ വസ്ത്രങ്ങൾ അലക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് കൂ അമിതമായ വെള്ളം ചിലവാക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കാരണം എപ്പോഴും വസ്സ് വെള്ളം നമ്മുടെ ജീവിതത്തിൽ ഏറ്റോം കൂടുതൽ പ്രാധാന്യം ഉള്ളൊരു കാര്യമാണ് വെള്ളം അമിതമായിട്ട് ഉപയോഗിച്ചത് പാഴാക്കുന്നതും നല്ലതല്ല കാരണം വെള്ളം കിട്ടാത്തതായിട്ടുള്ള കുറെ ജനങ്ങൾ നമുക്കിടയിലുണ്ട് അവർക്കൊരു തുള്ളി വെള്ളത്തിന് പോലും അവർ കഷ്ടപ്പെടുകയാണ് അപ്പം അവരുടെ കഷ്ടപ്പാട് ഞാൻ കാണേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ അമിതമായിട്ടുള്ള ഈയൊരു വെള്ളം ഉപയോഗം കുറയ്ക്കുന്നതിന് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യം വെള്ളം സംഭരിച്ച് വെള്ളം സംഭരിച്ച് വെച്ചിട്ട് അതിനെ പലതരത്തിലേയ്ക്ക് പല പല പാത്രത്തിലേയ്ക്ക് ഞാൻ വെള്ളം ഒഴിച്ച് അതിനെ ഡിവൈ അതിനെ അതിൻ്റെ അതിൻറ്റേതായ രീതിയിൽ ചെയ്തതിന് ശേഷം ആ വെള്ളത്തിലേയ്ക്ക് തുണികൾ മുക്കി അത് വെള്ളം അധികം പാഴാക്കാത്ത രീതിയിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കാരണം ഇത് വളരെ ഒരു നല്ലൊരു കാര്യം നല്ലൊരു രീതിയിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അമിതമായ വെള്ളം പാഴാക്കാതെ തന്നെ നമ്മൾ കാര്യങ്ങൾ ഒക്കെ മുമ്പോട്ട് പോകാൻ പറ്റും കാരണം വെള്ളം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമാണ് അപ്പം വസ്ത്രങ്ങൾ കഴുകാൻ ഏത് ഏത് രീതീലും വേണമെങ്കിലും നമുക്ക് ഓ പിന്നെ ഏത് രീതീലും വേണമെങ്കിലും നമുക്ക് ചെയ്യാം ചെയ്യാനുള്ളതേയുള്ളു അതുപോലെ തന്നെ അതിൻ്റെ ഏത് കാലാവസ്ഥയിലും വേണമെങ്കിൽ നമുക്ക് വസ്ത്രങ്ങൾ ഉണക്കാവുന്നതേയുള്ളു അതുമല്ലാതെ തന്നെ വെള്ളവും നമുക്ക് അധികം പാഴാക്കാതെ ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു